ഹലോ ആരാണ് വിളിക്കുന്നത് പറഞ്ഞോളു കറി നെയ് നെയമീനുണ്ട് മോദയുണ്ട് വെത്തയുണ്ട് പിന്നെ പിന്നെ കേരയുണ്ട് പിന്നെ വിവിധങ്ങളായ ചെറുമീനുകളുണ്ട് മത്തി ചൂട കൊഴുവ ചെറുമീനുകളെല്ലാം തോരനും ഫ്രൈ വറുത്തത് ഓൾ ഫ്രൈ പിന്നെ മുളക് മുളക് കറിയുണ്ട് പിന്നെ തേങ്ങ അരച്ച ഫിഷ് മോളിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കറികൾ ഉവാ മീൻ പൊള്ളിച്ചത് നമുക്ക് മസാല പെരട്ടിയുള്ള പോൺ ഫ്രൈ ഉണ്ട് അല്ലാതെ ഈ കരിമീൻ പൊള്ളിച്ചതുണ്ട് പിന്നെ ചെറുമീൻ ഇലയെ പൊള്ളിച്ചത് കരിമീൻ പിന്നെ നമ്മുടെ നെയ്മീൻ അങ്ങനെയൊക്കെയുള്ളതാണ് കൊഞ്ച് ഫ്രൈ ഉണ്ട് കേട്ടോ പ്ലേറ്റ് ചെറുമീനുകലാണേൽ ഒരു അഞ്ഞൂറു രൂപ മുന്നൂറ് റൂപ ചേറു മീനുകൾ അത് നമ്മൾ ഒരു പ്ലേറ്റ് കണക്ക് ആ ചെറുമീൻ ആ അത് തന്നെ തന്നെ കൊഞ്ചിന് ഒരു അറുന്നൂറ് ഇരുന്നൂറോക്കെ വരും അതിപ്പോൾ കൊഞ്ച് ഇല്ല കൊഞ്ചോക്കെന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു രണ്ടെണ്ണമൊ മൂന്നെണ്ണമോ ഒക്കെയേ ഉള്ളൂ വലിപ്പം അനുസരിച്ച് കരിമീൻ ഒരെണ്ണം ആണ് അതൊരു നാന്നുറ്റൻപത് രൂപ വരും ഒറ്റ കരിമീൻ ആ ആ വലുതാണ് ചെറുതല്ല ചെറുതല്ല നാടൻ നല്ല കരിമീൻ ആ ഉണ്ട് അതും ഉണ്ട് അതും ഉണ്ട് അല്ല ഹോം ഡെലിവറിയുണ്ട്

വില വ്യത്യാസം ഉണ്ട് നമ്മൾ ജോലിക്കാരെ നിർത്തിയിരിക്കുന്നല്ലേ അപ്പം നമ്മുടെ ദൂരം അനുസരിച്ച് ഉള്ള അവർക്ക് കൊടുക്കുന്ന പൈസ ഉവാ ഉവാ ഉവാ ഉവാ ഉവാ ഉവാ ഉവാ ഉവാ എന്തുമാത്രം വേണം എത്ര കഷ്ണം ഉണ്ട് പൊടി മീൻ കൊഴുവയുണ്ട് കൊഴുവയുണ്ട് പിന്നെ നമ്മുടെ ആ ചൂട് പോലത്തെ മീൻ അത് തന്നെ വലുതും ചെറുതും കൊഴുവയുടെ ചെറുതും ഉണ്ടല്ലോ തീരെ ചെറുതും ആ നമ്മുടെ നീണ്ട നീണ്ടകര മത്സ്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ വരുന്ന മത്സ്യങ്ങളൊക്കെയാണ് പൊടി മീൻ അതാ പറഞ്ഞേ കടൽലെ ആ കടൽലെ കടൽലെ പൊടി മീൻ അല്ലല്ലല്ല ഓക്കേ ഓക്കേ ആ കരിമീനും കൊഞ്ചും ഒക്കെ അങ്ങനെയുള്ളതാണ് അപ്പോൾ ശരി ഓർഡർ ചെയ്യുവാണെങ്കിൽ ആ അത് എപ്പോഴും ഇവിടെ റെഡിയുണ്ട് നിങ്ങൾ അറിയിച്ചാൽ മതി രണ്ട് ദിവസം മുമ്പ് അറിയിച്ചാൽ മതി നമ്മളത് സെറ്റാക്കി ആ നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ട സ്ഥലവും കാര്യങ്ങളും നമ്പരു ഒക്കെ തന്നാൽ മതി കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ശരി ഓക്കേ